ഹലോ ആ മെറീനേ ആ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കണ്ടായിരുന്നല്ലോ ഈയിടെ വല്ല സിനിമയ്ക്കും പോയിരുന്നോ ആ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അടിച്ചുപൊളിച്ചല്ലോ സ്റ്റാറ്റസ് ഒക്കെ കണ്ടല്ലോ ഓ നമുക്ക് എവിടെയാണ് എടാ സമയം ആരുടെ സിനിമ ആയിരുന്നു ആ ഉർവശിയുടെയോ ആ ആ ഓ ഞങ്ങൾ ഇപ്പോൾ കുറേ നാളായി സിനിമയ്ക്കൊക്കെ പോയിട്ട് ഞങ്ങൾ പണ്ടെങ്ങാണ്ട് ഒരു സിനിമ എങ്ങാണ്ട് പോയി തിയേറ്ററിൽ പോയി കണ്ടതാണ് ഓ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണേണ്ട സമയമൊന്നും ഇല്ലല്ലോ ആ ഇപ്പം കോവിഡ് കഴിഞ്ഞപ്പോൾ പി ഓ അതൊക്കെ ശരിയാണ് എടാ നമ്മൾ ഈ പിള്ളേർ ഒക്കെ ഉള്ളിടത്ത് നമുക്കിപ്പം അതിന് വല്ല സമയം ഉണ്ടോ ആ പിന്നെ ഇപ്പോൾ ഒ ടി ടി ഒ ടി ടി പ്ലാറ്റ്ഫോം ഉള്ളത് കാരണം നമുക്കിപ്പം വീട്ടിൽ ഇരുന്നാലും കാണാമല്ലോ അപ്പം ഞങ്ങളിപ്പം ഹോട്ട്സ്റ്റാർ ചാർജ് ചെയ്തിട്ടുണ്ടേ അപ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കാണെങ്കിലും നമുക്ക് ഫോണിനകത്താണെങ്കിലും നമുക്കിപ്പം ടി വിക്കകത്താണെങ്കിലും കാണാമല്ലോ പണ്ടത്തെ പോൽ കണക്ക് നമുക്ക് ടി വിയിൽ സിനിമ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആ ഹാ എന്നാലും തിയേറ്ററിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണല്ലേ ആ ആരൊക്കെയാണ് പോയത് ആണോ എവിടെയാണ് ചങ്ങനാശ്ശേരിയിൽ ആയിരുന്നോ ആലപ്പുഴയിൽ ആയിരുന്നോ ആണോ ആ ഞങ്ങൾക്ക് ഒന്ന് പോവണം അപ്പം ഞങ്ങളിപ്പം ഇപ്പം ഈ കഴിഞ്ഞ സിനിമകളെല്ലാം ഞങ്ങൾ കണ്ട് അതെല്ലാം നമ്മൾ ഒ ടി ടി പ്ലാറ്റഫോമിലാണ് കണ്ടത് അതാകുമ്പം നമുക്ക് പിള്ളേരെ ആണെങ്കിലും ഉറക്കി കിടത്തിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് വിട്ടിലിരുന്ന് കാണാമല്ലോ അല്ലെങ്കിൽ പിന്നെ ചങ്ങനാശ്ശേരി വരെ നമ്മൾ പിള്ളേരെയും കൊണ്ട് ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ ഒ ടി ടിയിൽ എല്ലാം റേറ്റ് ഒക്കെ ഇപ്പം അവർ കൂട്ടിക്കൊണ്ടിരിക്കുവാണ് അതും ഒരു ബുദ്ധിമുട്ടാണ് ആ എന്തായാലും ഇനി അടുത്ത സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒന്ന് പറ കേട്ടോ ആ ശരി എങ്കിൽ ഓക്കെ ആ ഓക്കെ എടാ എങ്കിൽ